ആ ചേട്ടാ ആ നമ്മളൊരു ഒരു കൂട്ടുക്കാരൻ പറഞ്ഞിട്ട് വരുവാണെ ഒരു നമ്മളുടെ ഒരു ഏട്ടൻ്റെ കുട്ടിയുടെ ബർത്ത് ഡേ ഉണ്ട് പാർട്ടി ഉണ്ട് അപ്പോൾ അതിനു ആ അതിൻ്റെ ഒരു ഫംഗ്ഷൻ നടത്താന്നു വച്ചിട്ടാണ് അപ്പോൾ അതിന് ഒരു ഔട്ട്ഡോർ ചെയ്യാന്നു വിചാരിക്കണു അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് അന്വേഷിച്ച് ബർത്ത്ഡേ ആണ് കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഏട്ടൻ്റെ അടുത്ത സൺഡേ ആണ് അടുത്ത ആ നമ്മൾ ഒരു ഔട്ട്ഡോറില് ഒന്ന് സെറ്റ് ചെയ്യാന്നു പറഞ്ഞിട്ട് വന്നതാണ് കൂട്ടുകാരൻ പറഞ്ഞു എങ്ങനെ ഈവെന്റ് മാനേജ്മെൻ്റ് എങ്ങനെ ഒരു അടിപൊളിയായി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് അന്വേഷിക്കാന്നു പറഞ്ഞിട്ട് വന്നതാണ് ഓഫർ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെന്ന് കേട്ടു

ആ ആ നമ്മൾ ഇപ്പോൾ ബർത്ത്ഡേ ഇപ്പോൾ ഒരു ഔട്ട്ഡോറില് അധികം ആള്ക്കാര് ഒന്നുമില്ല ഒരു പത്തു നൂറ്റമ്പത് പേര് ഇരുന്നൂറ് അതിൻ്റെ ഉള്ളിലെ ഉള്ളൂ ചെറിയ ഒരു പരിപാടി ആണ്

ആ മൊത്തത്തില് നമ്മൾ ഇതിപ്പോൾ എടുക്കാണെങ്കിൽ എത്ര വരും ഒരു റേറ്റ് ബജറ്റ്

അതായത് ഇതില് അതില് ഫുഡും മൊത്തം ഡെക്കറേഷൻ ലൈറ്റ് എല്ലാ കാര്യങ്ങളും വരുമല്ലേ സ്പീക്കർ കാര്യങ്ങൾ ഒക്കെ വരില്ലേ ഓ ഒരു ഒര് ഹെഡിന് നാന്നൂറ് വെച്ചിട്ട് വരുമല്ലേ ഓ ആ ആ ഒക്കെ നമ്മൾ ഇപ്പോൾ ഒരു കല്യാണം ഒക്കെ നടത്താൻ ആണെങ്കിൽ കല്യാണത്തിൻ്റെ ഒരു റിസെപ്ഷൻ ഒക്കെ ആകുമ്പോൾ എങ്ങനെ വരുന്നത് അതായത് ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഐറ്റംസ് ആ ആ ആ ആ ആ ഓ മൊത്തത്തില് അങ്ങനെ മൊത്തത്തില് എടുക്കുമ്പോഴാണ് ഓഫർ ഉണ്ടാവുക അല്ലേ നമ്മൾ മൊത്തത്തില് ഒരു കൊട്ടേഷന് എടുക്കുമ്പോൾ ആണ് ഓഫർ കിട്ടുക അല്ലേ ഓ ആ ആ ആ നമ്മൾ ഇപ്പോൾ ഇതിൽ ഏറ്റവും ബെറ്റർ ഏതാണ് അതായത് ഇപ്പോൾ ഒരു റിസെപ്ഷൻ നടത്തുമ്പോൾ ഔട്ട്ഡോർ ചെയ്യുന്നത് ആണോ ബെറ്റർ അതോ എന്താണ് നമ്മൾ ഓഡിറ്റോറിയത്തില് ആ അല്ല മഴ മഴക്കാലം അല്ലാത്ത സമയത്ത് ഒക്കെ ആണല്ലോ അല്ലേ

ആ ആ അതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് തോന്നണു അല്ലേ ഔട്ട്ഡോർ ആ ആ അല്ല നമ്മള് ഇപ്പോൾ ഇപ്പോൾ മഴ ഇല്ലല്ലോ ഇപ്പോൾ എന്തായാലും ബർത്ത് ഡേ നമ്മുടെ തൊട്ട് ഇപ്പുറത്ത് പറമ്പ് ഉണ്ട് ഒരു പറമ്പ് ഉണ്ട് അപ്പോൾ അവിടെ സെറ്റ് ചെയ്യാമെന്ന് ഉള്ള ഒരു മൈൻഡ് ആണ് ആ നിങ്ങൾ അതിൻ്റെ കുറച്ച് എന്താ പറയുക ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തന്നിട്ടെ പ്രൊമോയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കാണിച്ച് തരാൻ പറ്റുമോ അതല്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്പർ തരാം അതിലേക്ക് അയച്ച് വിട്ടാലും മതി അപ്പോൾ വീട്ടിൽ കാണിക്കാമല്ലോ

കുറച്ച് ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും

നമ്പർ ഞാൻ ആ നമ്പർ തരാം സാറിൻ്റെ കാർഡിലേക്ക് അയച്ചാൽ മതിയോ ഈ നമ്പർ ആ ശരി എന്നാൽ ആ ആ നമ്പറിലേക്ക് അയക്കാം ഇപ്പോൾ അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴേക്ക് ഇത് ബുക്ക് ചെയ്യേണ്ടിവരും എങ്ങനെ നാളെ ബുക്ക് ചെയ്താൽ മതിയോ

ഒക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ വീട്ടില് പോയിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വിളിക്കാം ഒക്കെ അപ്പോൾ നിങ്ങൾ എന്തേലും ഡിസ്കൌണ്ട് ഇനി ചെയ്ത് തരണം

ആ ഒക്കെ ശരി എന്നാൽ വിളിക്കാം